കൂടുതലായിട്ട് ഹൈക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ മലകള് തന്നെയാണ് മലകളില് കയറിയിട്ടുള്ള കാഴ്ചയാണ് കൂടുതലായിട്ടും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മലകളിൽ കയറികഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും മൊത്തത്തിലുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും മൊത്തത്തിലുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ വനങ്ങള് കാണാം ഇപ്പം ബീച്ച് ബീച്ചേരിയല് എന്നല്ല അല്ലാത്തതിലാണങ്കിൽ വനങ്ങള് കാണാം മൊത്തത്തിലൊരു കാഴ്ച നമുക്ക് കാണാം ടൗണേരിയ ഒക്കെ ആണെങ്കിൽ ആ പ്രകൃതി ഭംഗി നല്ല രീതിയില് തന്നെ നമുക്ക് ആസ്വദിക്കാന് കഴിഞ്ഞു മലങ്ങൾ മലനിരകളിലാണെങ്കിൽ മലനിരകളിലാണെങ്കിൽ പല പല മല നിരകളുണ്ട് അതിൽ മലകളെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ മലകളില് മാത്രമല്ല ചിലപ്പോൾ ആ മലയിൽ തന്നെ വാട്ടര് ഫാള്സ് പോലെയെട്ടുള്ള വെള്ളങ്ങള് വരുന്നത് ഉണ്ട് അങ്ങൻത്തയൊക്കെ കുറെ എണ്ണം ഉണ്ട് വെറും മലകളായിട്ടുള്ളവയല്ല വാട്ടര് ഫാൾസ് പോലൊക്കെ ഇങ്ങനെ വെള്ളങ്ങളുള്ള ഓരോ ഭൂപ്രദേശങ്ങളുണ്ട് കൂടുതലായിട്ട് ഉള്ളത് മലകളാണുള്ളത് കൂടുതല് ഇഷ്ടമുള്ള ഭൂപ്രദേശം മലകള് നിറഞ്ഞ ഇത് പിന്നെ വനങ്ങളും ബീച്ചുകളും ഉണ്ട് മഞ്ഞുമൂടിയ പര്വ്വതങ്ങളുണ്ട് പക്ഷെ കൂടുതലായിട്ടുള്ളത് മലകളാണ് ഇഷ്ടമെന്നല്ല പോകാനും താല്പര്യം ഉള്ളത് അതിന്റെ മേലെയുള്ള മൊത്തത്തിലുള്ള കാഴ്ചകള് നോക്കിക്കാണാന് കഴിയും